ഗ്രാമീണ സമുദായത്തിൽ യുവതലമുറ കൃഷിയെ ഒരു തൊഴിലായിട്ട് തന്നെയാണ് കാണുന്നത് അവരുടെ ജീവിത രീതിയായിട്ടും കാണുന്നുണ്ട് കാരണം കൃഷിയിൽ ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് എന്നു പറയുന്നത് കൃഷിയാണ് രാജ്യത്തിൻ്റെ സമ്പത്ത് കർഷകരാണ് ഒരു വലിയ വിഭാഗം യുവതലമുറ കൃഷിയെ ഒരു തൊഴിലായിട്ടുതന്നെ കണ്ട് കൃഷിയിൽ പുതിയ പുതിയ രീതികളിൽ അവലമ്പിച്ചവർ കൃഷി നല്ല രീതിയിൽ ചെയ്യുന്നു വിളവുകൾ കൂടുതലെടുക്കുന്നു എടുക്കാനുള്ള രീതി നൂതന മാർഗ്ഗങ്ങളവർ അന്വേഷിക്കുന്നു കണ്ടെത്തുന്നു ആ രീതി കൃഷി ചെയ്യുന്നു പല പുതിയ രീതി അതായത് മെയിനായിട്ടിവിടേ ചെറുപ്പക്കാർ കൃഷി പ്രയോഗിക്കുന്ന രീതിതന്നെ ഇസ്രായേയിലുള്ള കൃഷി രീതിയാണ് ഇസ്രായേയിൽ അവർ അവിടെ ഒരു കൃഷി ചെയ്തെടുക്കുക എന്നു പറയുന്നത് അവർ വളരെ നല്ലൊരു ഹൈബ്രിഡ് കൃഷി രീതിയാണവർ അവലമ്പിക്കുന്നത് ആ രീതിയിലേക്ക് നമ്മുടെ അവിടുത്തെ ചെറുപ്പക്കാർ മാറി വരുന്നുണ്ട് കാരണം കൃഷി ഇല്ലാതെ അല്ലെങ്കിൽ കർഷകർ കൃഷി ഇല്ലാതെ ഒരു നാടിനെ നിലനിൽപ്പില്ല ഒരു രാജ്യത്തിനു നിലനിൽപ്പില്ല അപ്പോൾ കൃഷിയൊരു തൊഴിലായിട്ട് സ്വീകരിച്ചത് അന്തസ്സായിട്ടും അഭിമാനത്തോടുകൂടിയും ഞാനൊരു കൃഷിക്കാരനാണ് അല്ലെങ്കിൽ കർഷകനാണ് എന്നു പറയാൻ തയ്യാറുള്ളൊരു യുവതലമുറ തന്നെ ഇന്നുണ്ട് അപ്പോൾ പുതിയ രീതികൾ അവലമ്പിച്ച കൃഷി നല്ല വിജയപ്രദമാക്കുക കൂടുതൽ വിളവു ഉണ്ടാക്കുക അതിലൂടെ ധാരാളം വരുമാനം ഉണ്ടാക്കുക പച്ചക്കറികൾ ആണെങ്കിൽ ഇപ്പോൾ പച്ചക്കറി കൃഷിയാണെങ്കിൽപ്പോലും നൂതന രീതിയിലവർ കൃഷി ചെയ്തു ഇൻ്റർനെറ്റിലും മറ്റും ഒക്കെ അന്വേഷിച്ച് അവർ കൃഷിയേപ്പറ്റിയുള്ള കാര്യങ്ങൾ നോക്കുന്നു ആ രീതി കൃഷിയിൽ അവർ സ്വന്തം സ്ഥലത്ത് അവർ ആ കൃഷി പ്രയോഗിക്കുന്നു കൃഷി ചെയ്യുന്നു വിളവുകൾ ഉണ്ടാക്കുന്നു അതിലൂടെ അവർ നല്ലൊരു വരുമാനം നേടുന്നു അപ്പോൾ കൃഷിയൊരു മോശം ആണ് എന്നു പറയുന്ന അല്ലെങ്കിൽ കർഷകരേ അവജ്ഞയോടെ കാണുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽപ്പോലും പല യുവാക്കളും കൃഷിയിലേക്ക് തന്നെ മാറുന്ന ഒരുപാട് യുവാക്കൾ ഇപ്പോഴുണ്ട് അവർ കൃഷി അവർ വളരെ ഇൻ്ററസ്റ്റായിട്ടാണ് അവിടെ ജീവിതമാർഗ്ഗം അല്ലേ ആയിട്ടു തന്നെയാണ് അവർ കൃഷി ചെയ്യുന്നത് അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ കൃഷി ചെയ്യുന്നു എന്നൊന്നുമല്ല അവർ അതൊരു അവരുടെ ജീവിത മാർഗ്ഗമായിട്ട് തന്നെയാണവർ കൃഷി ചെയ്യുന്നത് അപ്പോൾ പഴയ രീതിയിലെ കൃഷിയെല്ലാം മാറി നൂതന രീതിയിലുള്ള കൃഷികളാണിപ്പോൾ ചെയ്യുന്നത് കാരണം കാലാവസ്ഥ മാറി വരുന്നത് അനുസരിച്ചിപ്പോൾ പണ്ടത്തെ കാലാവസ്ഥയല്ല ഇപ്പോഴുള്ളത് അതുകൊണ്ട് ചെറുപ്പക്കാർ നൂതന അല്ലെങ്കിൽ പുതിയ കൃഷിരീതികൾ ആണ് അവർ അവലമ്പിക്കുന്നത് അപ്പോൾ ഒരു ഇന്നത്തെ യുവതലമുറയിൽ ഒരു അറുപത് ശതമാനം ആൾക്കാരും കൃഷി ആയിട്ടു ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൃഷി ചെയ്തു ജീവിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് ഇപ്പോഴുള്ളത്